ആ മലയാളത്തിൽ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒന്നാമത് ഉച്ചാരണം ശരിയാവാതെ ഇങ്ങനെ ഒരു ഒരു ചെറിയ വിക്കൽ പോലെ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസിലാവും നാക്കുളുക്കുന്ന മാതിരി പെട്ടെന്ന് വാക്ക് കിട്ടാത്ത ബുദ്ധിമുട്ട് അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് പിന്നെ എഴുതുമ്പോൾ ഇതേ മാതിരി തന്നെ നമുക്ക് കയ്യിലൊതുങ്ങാത്ത പോലെ അക്ഷരത്തെറ്റുകൾ വന്നാൽ പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ ഒക്കെ ആവാറുണ്ട്